ബാല്യകാല സഖി ഖസാക്കിൻ്റെ ഇതിഹാസം രണ്ടാമൂഴം പാത്തുമ്മയുടെ ആട് പിന്നെ ഇതൊക്കെ ബഷീറിൻെയും അതേപോലെ ബെന്യാമിൻ്റെയും കഥകളാണ് ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്നത് നമുക്ക് ബുക്ക് സ്റ്റാൾ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം ഞാൻ അങ്ങനെക്കെയാണ് അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട രചനകളാണ് ക്ലാസ്സിക്കാണ് ഒത്തിരി പഴയ ബഷീറിൻ്റെ രചനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാല്യകാല സഖിയൊക്കെ ഒത്തിരി പഴയതാണ് രണ്ടാമൂഴം ഖസാക്കിൻ്റെ ഇതിഹാസം നല്ലൊരു രചനയാണ് അപ്പം ഞാനിതൊക്കെ അടുത്തുള്ള ഷോപ്പ് അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് റേറ്റിലും കുറച്ച് കുറവുണ്ടാകും നല്ല നല്ല ബുക്കുകളാണ് നമ്മൾ വായിക്കേണ്ട ബുക്കുകളാണ് ബാല്യകാല സഖിയൊക്കെ ആടുജീവിതമൊക്കെ കാരണം അതൊക്കെ റിയൽ സ്റ്റോറിയാണ് എല്ലാം റിയൽ സ്റ്റോറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓരോരുത്തര അനുഭവമാണല്ലോ എവിടെയെങ്കിലും റിയലായി നടന്നതായിരിക്കൂമല്ലോ അവരുടെ അനുഭവത്തിൽ വരിക വളരേ നല്ലതാണ് അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കുന്നത് ക്ലാസിക് ബുക്സൊക്കെ അതിൻ്റെ സ്പെഷ്യൽ എഡിഷനൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാ ചെയ്യാ കേട്ടോ